ഞങ്ങളുടെ ഈ ബിസിനസ്സിൽ ഇപ്പം പരിപാലിക്കുന്നത് ഞാൻ തന്നെയാണ് തീറ്റ കൊടുക്കുന്നതും കൂടെല്ലാം വൃത്തിയാക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നതെ ഇപ്പം അതിനുവേണ്ടി വേറെ ആൾക്കാരൊന്നും വേണ്ട അവയ്ക്കു ഭക്ഷണം കൊടുക്കുന്നതും വേറെ സഹായികളൊന്നുമില്ല ഞാൻ തന്നെ കൊടുക്കും രാവിലെ എഴുന്നേൽക്കും കൂടൊക്കെ വൃത്തിയാക്കും അതിൻ്റെ മുട്ടയൊക്കെ എടുക്കും അതിനു ഭക്ഷണം കൊടുക്കും അതിൻ്റെ ക കാഷ്ടങ്ങളൊക്കെ ഞങ്ങൾ വളമായിട്ട് പിന്നെ കൃഷികൾകൊക്കെ ഇടും പിന്നെ ഇപ്പം ഇനിയിപ്പം ഇത്രയും ഉള്ളതു കൊണ്ട് ഞാനും അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളും ഭർത്താവുമൊക്കെ കൂടെ ഒന്ന് ചിലപ്പോഴൊക്കെ സഹായിക്കും അല്ലാതെ വേറെ പുറത്തു നിന്നു സഹായികളെ കൊണ്ടുവന്നാൽ അവർക്കും എന്തെങ്കിലും പൈസയൊക്കെ അവർക്കും കൊടുക്കണ്ടെ അതിനുള്ളതൊന്നും ആയിട്ടില്ലല്ലോ അപ്പം ഇനിയും കൂടുതൽ മുന്നോട്ട് വളർത്തുമ്പോഴത്തേക്കിനും വേറെ ആരെങ്കിലും ഒരാളെ സഹായത്തിനും വെക്കണമെന്നുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ ഇത്രയും ഒക്കെ നമ്മളെക്കൊണ്ടൊക്കെ പറ്റും ഇപ്പം എന്നെക്കൊണ്ടൊക്കെ ഇതൊക്കെ സാധിക്കും ഇങ്ങനെ കോഴി മുട്ട എടുക്കാനും കോഴി കൂട് വൃത്തിയാക്കാനും അതിൻ്റെ ഇങ്ങനെ കോഴിക്കുള്ള തീറ്റയൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നു കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ തന്നെ ഞാൻ തന്നെയാണ് അന്നേരം പിന്നെ കോഴി വൃത്തിയാക്കുന്ന അതിൻ്റെ കാഷ്ടം വേറെയാക്കിയിടും തീറ്റ കൊടുക്കുന്ന വേറെ സ്ഥലം അങ്ങനെ കുഞ്ഞുങ്ങളെ വേറെ ആക്കും വലിയതിനെ വേറെയാക്കിയിടുന്ന സ്ഥലം എല്ലാം കൂടെയല്ല താറാവിനെ വേറെ കൂടിനകത്താക്കും അവയെ വെള്ളത്തിൽ വെള്ളം ആവശ്യത്തിനു വെള്ളം കൊടുക്കും അങ്ങനെ തീറ്റ കൊടുക്കും താറാകുഞ്ഞുങ്ങളെ അതെല്ലാം ഞങ്ങൾ തന്നെ നോക്കുകയാണ് അതിനു പ്രത്യേകിച്ച് ഇപ്പം ആളെ ആവശ്യമുണ്ടെന്നു തോന്നുന്നില്ല പിന്നെ അവയുടെ മുട്ടയുമൊക്കെ ഇങ്ങനെ കൊടുക്കും അങ്ങനെ പരിപാലിക്കുന്നു ഞങ്ങളിപ്പോൾ അതുപോലെ പരിപാലിച്ച് കൊണ്ടുവരുന്നു ഇപ്പം വേറെ ആൾ വേണമെന്നു ഞങ്ങൾക്ക് തോന്നുന്നുമില്ല ഇപ്പം ഉള്ള കോഴികളും താറാവുകളുമെല്ലാം ഞങ്ങളുടെ എൻ്റെ ഇതുകൊണ്ട് വളർത്തുകയാണ് വേറെ ആവശ്യം വന്നാലിനി ആളിനെ നോക്കാം അപ്പം ഇനി കൂടുതൽ കുറവെന്നു കുറെ കഴിയുമ്പോൾ കൂടുതൽ കോഴിയും താറാവുമൊക്കെ ആകുമ്പോൾ ആളെ കൊണ്ടുവന്ന് നിർത്താമെന്നു വിചാരിക്കുന്നു പിന്നെ ഇത്രയും ഇപ്പോഴത്തെ ഈ രീതിയിൽ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളും ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെയുണ്ട് അത്രയേയുള്ളു അല്ലാതെ എന്നെകൊണ്ടുതന്നെ സഹായം മതി ഞാൻ തന്നെ നോക്കുന്നതാണ് നല്ലത് കോഴിയെ രാത്രി അടച്ചിടും ഇടക്ക് ഇറക്കും കോഴി കൂട്ടിനകത്തിടും അങ്ങനെയൊക്കെ പോകുന്നു അല്ലാതെ വേറെ ആരും പരിസരം വൃത്തിയാക്കുന്ന പോലെത്തന്നെ തൂത്തുവൃത്തിയാക്കും എല്ലാം കാഷ്ടങ്ങളെല്ലാം മാറ്റി അതെല്ലാം കൊണ്ടിടും പിന്നെ ഇത്രയൊക്കെയേ ഉള്ളു പറയാൻ